വാർത്തകൾ വായിക്കുന്നതിൽ ഇപ്പം പൊതുവെ വാർത്തകൾ വായിക്കുന്നതിനോട് പിള്ളേർക്ക് താല്പര്യക്കുറവാണ് പക്ഷെ എൻ്റെ മക്കളോട് ഞാൻ പറയുന്നുണ്ട് വാർത്ത കാണണം അത് കേൾക്കണം എങ്കിലേ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഫോൺ എടുത്താൽ ഫോൺ മതി ഫോൺ എടുത്ത് കഴിഞ്ഞാൽ വാട്ട്സ്അപ്പ് ഗെയിമ് കളി ഫേസ്ബുക്ക് അങ്ങനെ കിടന്ന് കളിക്കുന്നു അത് ഈ ഈ ഒരു അജ്ഞാതം പിടിച്ച കളിയാണ് കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ലാത്ത ഒരു കളികളാണ് വാർത്തകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തലമുറ നമുക്ക് നന്നായിട്ട് വരും പക്ഷെ അത് കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ കേൾക്കത്തില്ല ഞാൻ എൻ്റെ മക്കളോട് പറയും വാർത്തകൾ വായിക്കണം വാർത്തകൾ കേൾക്കണം അതിനകത്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും മാറ്റി വച്ചേച്ച് ആദ്യമേ വാർത്തകളാണ് നമ്മൾ അറിയേണ്ടത് പഷേ ഇത് ഇപ്പം ഈ ഈ ഈ കാലത്തെ ഈ തലമുറയിലെ പിള്ളേരുടെ കാര്യം പറയുകയാണെങ്കിൽ വാർത്തയെന്ന് വരുമ്പോഴേ അവർ അതങ്ങ് മാറ്റും ആ വാർത്ത ടീ വി ടീ വിയെ കാണാതായ ഒരു കാലമാണ് ഈ ഫോൺ ഇറങ്ങിയതിൽ പിന്നെ ഫോണിനകത്തുള്ള കളികളും വാട്ട്സ്അപ്പ് കളികളും കുഞ്ഞുങ്ങളുടെ കൊച്ചുപിള്ളാരാണെങ്കി പോലും അവരുടെ ആ അവരുടേതായിട്ടുള്ള കളികൾ അവരുടെ മഞ്ചാടിയും കാര്യങ്ങളുമൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ വലിയവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും വാർത്ത ഒരു ഒരു ഒരു വാർത്ത കാണുന്നതിനോട് ഇപ്പോഴത്തെ ഒരു കുഞ്ഞുങ്ങൾക്കും ചെറുതിനും വലുതിനും ഒന്നുമേ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് നമ്മൾ പിന്നെ കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കുന്നു വാർത്ത കാണണം അത് അത് പ്രയോജനപ്പെടുത്തണം എന്നൊക്കെയാണ് അതിലൊന്നും അങ്ങനെയുള്ള വാർത്തകൾ അല്ലല്ലോ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം എല്ലാം ഫോണിൽക്കൂടിയങ്ങനെ വരുമ്പം നല്ലതായിട്ടുള്ള കാര്യങ്ങൾ കാണാനായിട്ട് ഒരു കുഞ്ഞുങ്ങളും മുന്നിലോട്ട് വരുന്നില്ല